ഹലോ അതുതന്നെ പറഞ്ഞോ

ആ വയനാട്ടിൽ ട്രിപ്പ് വരാൻ വേണ്ടിയിട്ടാണോ ഓക്കെ അങ്ങനെ ആണെങ്കിൽ നമുക്ക് വയനാട് കയറുമ്പം ചുരം കയറുമ്പം തന്നെ ഓരോ പ്ലെയ്സുകളുണ്ട് ചുരം കയറുമ്പോളാണെങ്കിൽ വ്യൂ പോയിന്റ് ഉണ്ട് പിന്നെ കരിന്തണ്ടൻ്റെ ചങ്ങല മരം അത് കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് പൂക്കോട് ലേക്ക് അവിടുന്ന് പോവാണെങ്കിൽ ചേമ്പ്ര പീക്ക് സർലാട് ലേക്ക് പടിഞ്ഞാറത്തറ ഡാം കാരാപ്പുഴ ഡാം മീൻമുട്ടി വാട്ടർഫാൾസ് തോൽപ്പെട്ടി വൈൽഡ്ലൈഫ് സാങ്ച്വറി തിരുനെല്ലി ടെംപിൾ മാണിക്കുന്ന് ഹിൽസ് തിരുനെല്ലി ട്രക്കിംഗ് നിങ്ങൾ എങ്ങനെ ട്രക്കിംഗ് ആണോ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ജസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസുകൾ വിസിറ്റ് ചെയ്ത് പോകാനാണോ രണ്ടും വേണം അല്ലേ ട്രക്കിംഗ് സെപ്പറേറ്റ് ആണ് ട്രക്കിംഗ് മാത്രം ചെയ്യുന്നുണ്ട് ഫ്രം ഏരി ഹിൽസ് ഒക്കെ ട്രക്കിംഗ് മാത്രം ചെയ്യുന്നുണ്ട് ചെമ്പ്ര പീക്ക് അതൊക്കെ വൺ ഡേ വൺ ഡേ ട്രിപ്പിന് പറ്റിയതാണ് ഈ ജസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസുകൾ മാത്രം കണ്ട് കണ്ട് പോകാനാണെങ്കിൽ ടു ത്രീ ഡേയ്സ് എടുക്കും കാരണം ഫാൻറ്റം റോക്ക് അങ്ങനെ ഒക്കെ ഓരോന്നും കാണാൻ പോവാണെങ്കിൽ നല്ല സമയം പിടിക്കും കാരണം ഒരു സ്ഥലത്തുനിന്ന് അടുത്ത സ്ഥലത്തോട്ട് അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട് സ്റ്റേ ഒക്കെ നമുക്ക് എവിടെയാണോ നിങ്ങൾ എടുക്കുന്നത് ഇപ്പം വയനാട് സെൻ്ററിൽ കൽപ്പറ്റയോ ബത്തേരിയോ എടുക്കുവാണെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിലും ആക്സസ് ഉണ്ടാവും പിന്നെ മാനന്തവാടി റീജിയനിലോട്ട് വരാൻ മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ട് വരിക അതായത് തിരുനെല്ലി പഴശ്ശി ടോംബ് പഴശ്ശി പാർക്ക് കുറുവായി പ്ലാൻറ്റ് ഇതൊക്കെ കാണാൻ വരണമെങ്കിൽ മാത്രമേ കുറച്ച് ഡിസ്റ്റൻസ് വരുള്ളൂ ബാക്കി കൽപ്പറ്റയോ ബത്തേരിയോ എടുക്കുവാണെങ്കിൽ ബാക്കി എല്ലാം അവിടെത്തന്നെ ആണ് ആ റിസോർട്ട് ഉണ്ട് റിസോർട്ട്സും അവൈലബിൾ ആണ് അപ്പം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ആ സ്പോട്ട് നോക്കിയിട്ട് അതിന്റെ അടുത്തുള്ള നിയർബൈ സ്ഥലങ്ങളിലെ റിസോർട്ട് കാര്യങ്ങൾ ഒക്കെ ഒന്ന് നോക്കാൻ പറ്റും എത്ര പേരാണ് നിങ്ങൾ വരുന്നത് ആ ഓക്കെ റിസോർട്ട്സ് ഒക്കെ ആണെങ്കിൽ അത് നമുക്കത് കിട്ടും ഒരു അയ്യായിരം ആറായിരം മുതൽക്ക് റിസോർട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് ആ ഫോറസ്റ്റ് ഹട്ടുകൾ ഉണ്ട് ട്രീ ഹൗസുകൾ ഉണ്ട് തോൽപ്പെട്ടി സാങ്ചുറിന്റെ ഉള്ളിൽ ഒക്കെ ആണെങ്കിൽ ട്രീ ഹട്ടുകളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് ഹ്മ് പിന്നെ വൈത്തിരിയിൽ നിന്ന് കയറുന്ന ഇടത്തുതന്നെ വൈത്തിരി പാർക്കിൻ്റ അവിടെയും ഉണ്ട് ട്രീ ഹട്ട്സ് ട്രീ ഹട്സിന് ഒക്കെ പെർ നൈറ്റ് ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് ഒക്കെ വരുന്നതല്ലേ ഇത്ര ലക്ഷ്വറി ആയിട്ട് വരുന്നില്ല നോർമൽ ആണെങ്കിൽ ടെൻറ്റ് സ്റ്റേയും ഉണ്ട് ഫോറസ്റ്റിനുള്ളിൽ ടെൻറ്റ് സ്റ്റേ ഒക്കെ ആണെങ്കിൽ ഒരു തൗസൻഡ് ഫൈവ് ഹണ്ട്രഡ് ഒക്കെ പെർ ഹെഡ് വരൂള്ളൂ പെർ നൈറ്റ്